നമ്മുടെ സംസ്കൃതം ഇംഗ്ലീഷ് തുടങ്ങിയ ആ ഭാഷയില് നിന്നാണ് പല മലയാളം ചില വാക്കുകളൊക്കെ നമുക്ക് നമ്മളെടുത്തിരിക്കുന്നത് സംസ്കൃത പദത്തില് നിന്ന് വാക്കുകളില് നിന്നാണ് സംസ്കൃതത്തില് നിന്നൊക്കെ കുറേ വാക്കുകള് നമ്മള് മലയാളത്തില് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് നമ്മള് മലയാളം സംസാരിക്കുമ്പോള് തന്നെ ഇംഗ്ലീഷിനെ നമുക്ക് ഒഴിച്ചുകൂടാന് പറ്റാത്ത തരത്തില് വളരെ പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നു അതുപോലെ തന്നെ ഈ ഭാഷകള് തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിധിവരെ ബന്ധപ്പെട്ടു കിടക്കുന്നത് കൊണ്ട് ഇവയൊന്നും നമുക്ക് മാറ്റി നിര്ത്താനായിട്ട് സാധ്യമല്ല അപ്പോൾ നമ്മളുടെ ഈ സംസ്കൃതവും ഇംഗ്ലീഷും ഒരു മലയാളിയെ സംബന്ധിച്ച് വളരെ നമ്മുടെ ഒഴിച്ചു കൂടാന് പറ്റാത്ത തരത്തില് ബന്ധപ്പെട്ടു കിടക്കുന്നു എന്ന് ന്നമുക്ക് കാണാനായിട്ട് സാധിക്കും സത്യം പറഞ്ഞാല് ഈ രണ്ടു ഭാഷകളും നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് വളരെ ഒഴിച്ചു കൂടാന് പറ്റാത്തതാണ്